തുന്നലിനായിട്ട് എൻ്റെ പക്കലൊരു തയ്യൽ മെഷ്യൻ ഉണ്ട് അത് നല്ല ഒരു കമ്പനിയുടെ മെഷ്യൻ തന്നെയാണ് വർഷങ്ങളായിട്ട് ഞാനതിൽ തന്നെയാണ് തയിക്കുന്നത് അതിന് എന്താണ് നമുക്ക് തുന്നലിനും നെയ്ത്തിനും ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ടതായിട്ടും വേണ്ടത് നൂൽ മെഷീനിന് അകത്ത് ഒഴിക്കുന്ന ഓയിൽ ഇതൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒക്കെ ചവിട്ടി തയ്ക്കുന്നത് ആയിരുന്നു ഇപ്പോൾ മോട്ടർ വെച്ച് തയ്ക്കാൻ പറ്റും അതുകൊണ്ട് അത് നല്ല ഒരു കാര്യമാണ് ആൾക്കാർക്ക് എളുപ്പത്തിലത് ചെയ്യാൻ സാധിക്കുന്നു ഇതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നൂലും ഒക്കെ കോർക്കാൻ പഠി തയ്യൽ പഠിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അത് നല്ല ഒരു വരുമാന മാർഗ്ഗമാണ്